ആ നമസ്കാരം നമ്മളൊരു ഹൗസ് വാമിങ്ങിന് കൊടുക്കുകയാണ് നമുക്കൊരു ടീ വീൻ്റെ ആവശ്യമുണ്ട് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയൊന്ന് പറഞ്ഞു തന്നാൽ ഒന്ന് വാങ്ങണം ഏത് മോഡലാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്

എൽ ജി മോഡല് കാണിച്ചാൽ മതി എൽ ജിയുടെയൊരു മുപ്പത്താറിഞ്ചിൽ വരണത് എത്രയാണ് റേറ്റെന്നു പറഞ്ഞാൽ

ഈ ടി വി ഇതവിടെ കൊണ്ടുപോയി കണക്ഷൻ ചെയ്യാൻ ഇവിടെനിന്ന് ആരെങ്കിലും വരുമോ അതെയല്ലേ വേറെ സാംസങ്ങിൻ്റെ മോഡലാകുമ്പോൾ എത്ര റേറ്റ് വരും അതെയല്ലേ എൽ ജിയാണോ നല്ലത് സാംസങ്ങാണോ നല്ലത്

ആ അതേ ഓ ഇപ്പം എൽ ജിക്ക് സർവീസില്ലേ ആ

ഓ ഇവിടെ വാഷിംഗ് മെഷീൻ്റെ റേറ്റിങ്ങ് എത്രയാണ് വേൾപൂള് മതി ഒരഞ്ച് കിലോൻ്റെയൊക്കെ ഉണ്ടാവില്ലേ

ആറ് കിലോൻ്റെയാകുമ്പോൾ എത്ര വരും ഫ്രണ്ട് ഓപ്പൺ മതി ഫുള്ളി ഓട്ടോമാറ്റിക്ക് ആയിക്കോട്ടെ ആ എന്നിട്ട് വേണം ഓക്കെ അപ്പോൾ സെമിയാണെങ്കിലോ സെമിയാണെങ്കിലോ

ആ അതെടുക്കണം എന്നുണ്ട് ടി വിയും വേണം വാഷിങ്ങ് മെഷീനും വേണം ഒരു കാര്യം ചെയ്യാം ഈ വാഷിങ്ങ് മെഷീൻ ഇ എം ഐയിലെടുത്തിട്ട് ടി വി റെഡി ക്യാഷ് കൊടുത്ത് എടുക്കാനാണ് അപ്പം ടി വി എൽ ജിയെടുക്കാം മുപ്പത്താറിഞ്ചിൻ്റെ

നിങ്ങൾ തന്നെ അറേഞ്ച് ചെയ്തു തന്നാൽ മതി ആ ഓക്കെ ആ റെഡിയാണ് ഓക്കെ

ആ ഓക്കെ ഓക്കെ ആ ഓക്കെ തേങ്ക് യു